ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നാൽ അവർ ആദ്യം ഒരു ഒരാൾക്ക് ഒരാൾ വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പോരായ്മ ആയിട്ട് തോന്നുന്നത് ഇവിടുത്ത റോഡുകളാണ് അപ്പം അതാദ്യം ശരിയാക്കുവാണെങ്കിൽ തന്നെ കൂടുതൽ ആൾക്കാർ കൂടുതൽ സഞ്ചാരികളിങ്ങോട്ട് വരാൻ അതിനെപ്പറ്റി സംശയം ഉണ്ട് സഞ്ചാരികൾ ഉറപ്പായിട്ടും തീരെ കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് വരും കാരണം റോഡുകളുടെ മടുപ്പ് കാരണം അവരെന്തായാലും അവർക്കൊരു ഇപ്പം അവർ അവരിപ്പം ഇവിടെ വന്ന് അവർ ഈ റോഡിൻ്റെ ഇത് കാരണം അവരെന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത് അന്നേരം അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് അവർ പറയും ആ ഇന്ന സ്ഥലത്തെ വഴി മടുപ്പാകും നമുക്ക് ട്രാവലിംഗിനുള്ള സമയം സമയം നമുക്ക് കിട്ടില്ല ട്രാവലിംഗിന് സമയം ഭയങ്കര കൂടുതലാണ് നമുക്ക് ഇപ്പം ഒരു സമയത്ത് ഇത്ര പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് വെച്ചാൽ അവർ ആർക്കും നടക്കില്ലന്ന് അറിയാവുന്നത് കൊണ്ട് അവരിപ്പം അവരുടെ ഫ്രണ്ട്സിനോട് പറയുമ്പത്തേന് എന്തായാലും ഷുവർ ആയിട്ട് അവർ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നവർ തീർച്ചയായിട്ടും അവർ മടുത്തിട്ടവർ ഓ ഇന്ന ആൾ പറഞ്ഞതല്ലേ അവിടെ ഇപ്പം ഇങ്ങനെയായിരിക്കും അപ്പം വേണ്ട അവരപ്പം അങ്ങനെ തീരുമാനിക്കും അപ്പം ഈ റോഡുകളുടെ ഒരു ഇഷ്യു ഉള്ളതുകൊണ്ട് തന്നെ അവരെന്തായാലും വരത്തില്ല കൂ അതുവല്ല ഇപ്പം അവരെ ആൾക്കാർ വന്നെങ്കിൽ തന്നെ ഇപ്പം ഇന്ന ഒരു ഏരിയേലോട്ട് പോകണം ഇപ്പം ഒരു ഒരു ഒരു ഉൾഗ്രാമത്തിലോട്ട് പോകണമെങ്കിൽ തന്നെ അവിടെയിപ്പം വഴികൾ ഭയങ്കര മോശമായിരിക്കും ഭയങ്കര മോശം അത് തീരെ വണ്ടിയും വണ്ടിയെന്നാൽ എതിരെ ഒരു വണ്ടി വന്നാൽ തന്നെ പോകാൻ പാടായിരിക്കും അപ്പം ഒരു വണ്ടി പോകുമ്പത്തേനും ഇടുങ്ങിയ വഴി കൂടെ പോകുമ്പോൾ അപ്പം ആ ഓടിക്കുന്ന ആൾക്കാർ വണ്ടിയുടെ ഉടമസ്ഥന് ഇപ്പോൾ ഈ സഞ്ചാരി വന്നിട്ട് ഇയാൾ പറയും ഇന്ന സ്ഥലത്തോട്ട് പോകണം അന്നേരത്തേക്കിന് ഇയാൾക്കാണെങ്കിലും ഒരു മടുപ്പ് ഓ ആ സ്ഥലത്തേക്കാണോ അയ്യോ വേണ്ടായിരുന്നു അപ്പം അവരെന്തായാലും ഉറപ്പായിട്ടും മിക്കവാറും അവരുടെ വണ്ടി പോകുന്നത് കൊണ്ട് പിന്നെയതിനുള്ള ചിലവ് വണ്ടി പിന്നെ ശരിയാക്കണമെങ്കിൽ ഒരുപാട് പൈസ ആകും അപ്പം അത് ശരിയാക്കാനുള്ള ചിലവ് ഒരുപാടുള്ളത് കൊണ്ടും അവരെന്തായാലും അടുത്തയാളെ പിടിക്കുകയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് വരെ വണ്ടി പോവത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് വിടും അന്നേരം ഈ സഞ്ചാരികൾക്ക് പിന്നെയും പാടാണ് അവരന്നേരം ഈ ട്രാവലിങിനായി പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെയപ്പം വഴിയറിയില്ല ഒന്നും അറിയാതെ ഇങ്ങനെ നിക്കുമ്പത്തേനും അവരെന്തായാലും അവർ പിന്നെ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട അവരെന്തായാലും വരത്തില്ല പിന്നെ ഇപ്പം അവരിപ്പം വന്നാൽ അവരിപ്പം അപ്പം റോഡിനൊന്നും വിഷയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് വരുന്നതെങ്കിൽ അവരിപ്പം ഒരു റിസോർട്ടിൽ വരും ഒരു ഒരു നല്ല ശാന്തമായിട്ടൊരു ക ഒരു കായലിനടുത്തുള്ള ഒരു റിസോർട്ട് റിസോർട്ടിൽ വന്നാൽ തന്നെ അവിടെ ഈ കായലിൽ എന്ത് മാത്രം വേസ്റ്റ് ഒക്കെ ഒരുപാട് പേരിടുന്നത് അപ്പം ഈ അപ്പുറത്തെ കരയിൽ നിന്നിടുന്ന വേസ്റ്റ് എന്തായാലും ഒഴുക്കുള്ള ഈ കായൽ വഴി എന്തായാലും ഒഴുകി ഈ സ്ഥലത്തേക്കും വരാം ഇപ്പം ഇവർ ഇങ്ങനെ നിൽക്കുന്ന അടുത്തേക്ക് എന്തായാലും ഈ വെള്ളം മടുപ്പായിരിക്കും ആ കൊള്ളൂല്ലായിരിക്കും അപ്പം അത് ഇവർക്ക് ഈ ഇവരിത് കാണുമ്പോൾ ഇവർക്ക് ആണേലും ഒരു ഇത് വരും അയ്യോ ഈ വെള്ളം കൊള്ളില്ല അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ നമുക്ക് നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊരു സ്മെൽ വരും അപ്പം അവിടെ നിൽക്കാൻ തന്നെ ആൾക്കാർക്ക് പോലും തോന്നത്തില്ല അവർക്കൊരു അവർക്കൊരു മടുപ്പ് വരുമ്പത്തേനും അവരെന്തായാലും അവർ പിന്നെ ഇപ്പം പത്ത് ദിവസം നിൽക്കണമെന്നും പറഞ്ഞ് വരുന്ന ആൾ ഇപ്പം അവിടെ ഒരു രണ്ട് ദിവസം അഞ്ച് ദിവാശമൊക്കെ മാക്സിമം പോയാൽ ഒരഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാറ് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അവർക്കപ്പം അത് അവർ അവർ വിചാരിക്കുകയാണ് എന്നാൽ കായലിൽ പോയി പോയി ഒന്ന് നീന്തണം കായലിലൊന്ന് നീന്തണം അല്ലെങ്കിൽ കായലിൽ ഒന്ന് ഫിഷിങ് ചെയ്യണം അന്നേരം അവർക്കന്നേരം അത് തന്നെ ഒരു മടുപ്പാണ് ഈ കായലിലെ വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം കാലിട്ടിരിക്കണം പിന്നെ ട്രാവലിങിനായി ഈ ട്രാവലേഴ്സിനോക്കെ അവർ അത് ടൂറിസ്റ്റ് ആൾക്കാർക്ക് തീർച്ചയായിട്ട് അവർക്കൊരു മടുപ്പായിരിക്കും അവർ അവർ തീർച്ചയായിട്ടും അതിന് മുതിരില്ല അവരെന്തായാലും അത് അത് നിൽക്കാതെ അവർ മടുത്ത് നിൽക്കും അവർ അവരിപ്പം അവർ ഫ്രണ്ട്സിനോട് തന്നെ ഇപ്പം ഇന്ന സ്ഥലത്തെ കായൽ സീ ഭയങ്കര മടുപ്പ് അവിടെ ഭയങ്കര ഭയങ്കര മലിനവും ഭയങ്കര പൊലൂറ്റഡും കാര്യങ്ങളൊക്കെയാണ് അവർ അവരെന്തായാലും പറയും പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇപ്പം വന്ന് പെട്ടെന്നൊരാളോട് ഇംഗ്ലീഷ് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കെന്തായാലും ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല അപ്പം ഈ ഓരോ ട്രാവലും ട്രാവൽ ഏജൻസിയും അതിൻറ്റേതായിട്ടുള്ള ആൾക്കാരെയും കൂടെ വയ്ക്കുന്നത് അതെന്തായാലും വേണ്ടിയതാണ് കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പമാണ് ഇപ്പം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് തന്നെയല്ല ഇപ്പം വേറെ ഏത് ലാംഗ്വേജ് തന്നെയാണെങ്കിലും അവർക്കറിയാത്തൊരു ലാംഗ്വേജ് അവർക്കറിയാവുന്ന ലാംഗ്വേജ് ഇവിടെ വന്ന് പറയുമ്പോൾ ഇവർക്കറിയത്തില്ല അന്നേരം ഇവരപ്പം ഇത് കേട്ടിട്ടിവർ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഓരോ ഏജൻസിക്കാരും അപ്പം ഓരോ ഇന്ന ഏരിയയിൽ അതിനെപ്പറ്റി അത്യാവശ്യം അറിയാവുന്ന അറിവുള്ള ഒരാൾ ഉണ്ടായിരിക്കുവായിരുന്നെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ പിന്നെ ഇപ്പം ഇവിടുത്തെ മറ്റേ അവരെന്തായാലും ഈ ഇങ്ങോട്ട് ഈ ഉൾഗ്രാമത്തിലോട്ടൊക്കെ വരുന്നത് ഈ മരങ്ങളും പക്ഷികളേയും പ്രകൃതിയായിട്ട് കൂടുതലടുത്ത് ആ അപ്പം ഫോറസ്റ്റ് ഏരിയയിലോട്ടൊക്കെയാണിപ്പോൾ ഇവർ വരുന്നെങ്കിൽ അവരെന്തായാലും വരുന്നത് ഫോറസ്റ്റ് കാണാനാണ് അല്ലാതെ അവിടെ വെട്ടി നിരത്തിയ മറ്റേ മ സ്ഥലം വെറും മറ്റേ മരത്തിന്റെ കുറ്റി മാത്രം നിൽക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയല്ല അവരെന്തായാലും വരുന്നത് ഈ മരങ്ങളെ മരങ്ങൾ കാണാനും മരത്തിലുള്ള ഓരോ കിളികളെ കാണാനും അതിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ആ മരത്തിൽ നിന്നും കിട്ടുന്ന ശുദ്ധമായ വായു ശ്വസിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിരിക്കും അവർ വരുന്നത് അപ്പം അവരെന്തായാലും അതിന് വേണ്ടിയാണ് വരുന്നത് അന്നേരം ഇവിടെ ഇപ്പം ഇന്ന ഇന്ന രീതിയിലാണെന്ന് പറയുമ്പത്തേക്കിനും അവർ അവരിപ്പം വന്ന് ഭയങ്കര എക്സ്പെക്ടിവ് ആയി അവരിങ്ങോട്ട് വരുവാണ് അവർ വരുമ്പത്തേന് ഇവിടെ മരമില്ല അതില്ല അന്നേരം ഇവർ ഉറപ്പായിട്ടും അവർ ഡിസപ്പൊയ്ൻറ്റഡ് ആയിട്ടവർ അവർ തീർച്ചയായിട്ടവർ പിന്നെ നിൽക്കില്ല അവിടെ അവർ അവരൊന്നു ക്യാമ്പ്ഫയർ ചെയ്തവർ അവർ കുറച്ച് നേരം ഒരു വൈൽഡ് ആയിട്ട് ഒരു നൈറ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം അവരിപ്പം ഫോറെസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു റിസോർട്ടിലാണ് വരുന്നതെങ്കിൽ അന്നേരം ഈ ഡാ ഈ വൈകിട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഫ ഫയർ ക്യാമ്പ് ഒക്കെ ചെയ്തൊന്ന് എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ വട്ടം കൂടി നിന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുമ്പത്തേക്കിന് അവർ ഷുവർ ആയിട്ട് അതവർക്ക് അതായിരിക്കും അവരുടെ മെയിൻ ലക്ഷ്യം അല്ലെങ്കിൽ അവർ അത് അതുകൊണ്ടായിരിക്കും റിസോർട്ട്കാരൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു ചാർട്ടിനകത്ത് ഇവർ ആഡ് ചെയ്യുന്ന ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്നേരം ഇവർ വരുമ്പോഴത്തേനും മരങ്ങളില്ല അതിന് ചുറ്റും ഇരിക്കാൻ സ്ഥലവില്ല ഫുൾ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലം അന്നേരം അവർക്കെന്തായാലും മടുപ്പ് വരും പിന്നെ ഈ വൈൽഡ് അനിമൽസിനെ കൊല്ലുന്നത് അവരെന്തായാലും വരുന്നതിപ്പം നൈറ്റിലല്ലേ ദൂരെ നിന്ന് ദൂരെ നിന്ന് കാണാൻ വേണ്ടി ആയിരിക്കും വരുന്നത് പിന്നെ ഇപ്പോൾ ഒരാന ഒരു മാൻ ഇതിനെയൊക്കെ വൈൽഡ് ആയിട്ട് ഇപ്പം ദൂരെ നിന്ന് ഒന്ന് കാണുക ലൈവ് ആയിട്ടൊന്ന് കാണുക ദൂരെ നിന്ന് ദൂരെ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒന്ന് കാണുക അന്നേരം അതിനെയൊക്കെ ഇപ്പോൾ ആനകളെ കൊല്ലുന്നു അപ്പോൾ അത് അതൊക്കെ ഒരിതാണ് അപ്പോൾ അവർ ഇത് അ ആനിമൽസിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത് അന്നേരം ഇവിടെ ഇവിടെ ഒന്നു ഇവിടെയില്ല അന്നേരം പിന്നെ ഇവർ കാണാൻ വരുന്നവർ അവർക്ക് വേണ്ടിയ സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്തായാലും ഇവിടെ നിൽക്കില്ല അവർ ഷുവർ ആയിട്ട് ഇവിടെ നിൽക്കില്ല പിന്നെ ഈ ഗവണ്മെൻറ്റും ഈ ആൾക്കാരെല്ലാം കൂടുതൽ ടൂറിസ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്യണം കാരണം അതിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്നതാണ് പക്ഷേ പൈസക്ക് വേണ്ടി മാത്രമല്ല അപ്പം വേറെ ഉള്ളവർക്കും നമ്മുടെ ഇവിടെ ഈ സ്ഥലത്തിനെപ്പറ്റി നമ്മുടെ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലും ആൾക്കരറിയുക അപ്പോൾ അവിടെ അവിടെ പോയാൽ ഇങ്ങനെ ലൈഫ് എൻജോയ് ഇപ്പം കുറച്ച് നാൾ നമുക്ക് കുറച്ച് ദിവസങ്ങളവിടെ നമുക്കവിടെ എൻജോയ് ചെയ്ത് നമുക്കവിടെ ഉറപ്പായിട്ടും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരിക്കലും ബോറടിക്കില്ല ഷുവർ ആയിട്ടും നമുക്കവിടെ നിൽക്കാമെന്ന് അവർക്ക് തോന്നും അപ്പം അങ്ങനെ നിൽക്കുന്ന നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ടൂറിസ്റ്റ്കളെ കൂടുതലിങ്ങോട്ട് വരുത്തിച്ചാൽ അപ്പം അവർക്ക് അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആൾക്കാരെ വിളിക്കണം അപ്പം അതിനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുത്താലേ ആൾക്കാർ കൂടുതൽ ഇവിടെ വരത്തുള്ളൂ അതിനുള്ള നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കികൊടുക്കാതെ ഇങ്ങോട്ട് വരത്തില്ല അതുപോലെ റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയാൽ കൂടുതലും ഇൻകവും കിട്ടും പക്ഷേ അതേപോലെ ആൾക്കാർ ഒരുപാട് പേർ ഇങ്ങോട്ട് വന്ന് അവർ അവരുടെ ലൈഫ് ലൈഫ് എന്ന് മാത്രമല്ല അവർ അവരുടെ കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തവരെന്തായാലും സുഖമായിട്ടവർ എൻജോയ് ചെയ്ത് നിൽക്കും